പാട്ട് പാടുമ്പോൾ നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ ആ പാട്ടിൽ വളരെ അതുപോലെത്തന്നെ പ്രതിഫലിക്കാറുണ്ട് കാരണം നമുക്ക് ദുഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ പാടുന്നതെങ്കിൽ നമ്മുടെ ആ ദുഃഖം ആ പാട്ടിലെ അങ്ങനെയുള്ള പാട്ടുകളിലൂടെ കടന്നുവരാറുണ്ട് പിന്നെ നമ്മളുടെ അവതരണത്തിലൂടെ അത് മറ്റുള്ളവർക്ക് ഒരുപക്ഷേ സങ്കടകരമായ ഒരു പാട്ടാണ് നമ്മൾ പാടുന്നതെങ്കിൽ അത് കേൾക്കുന്നവരിലേക്കും ആ ഒരു ഭാവം പകർന്ന് കിട്ടാറുണ്ട് അതുപോലെത്തന്നെ നമ്മൾ സന്തോഷകരമായ ഒരു പാട്ട് പാടുമ്പം അതിലൂടെ അവർക്ക് സന്തോഷം ലഭിക്കുന്നു അപ്പോൾ ഒരു നമ്മളുടെ മാനസികമായ വികാരമെന്താണ് അതാണ് ആ പാട്ടിൽ പ്രതിഫലിക്കുന്നത് അത് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്ന് കൊടുക്കാനും സാധിക്കുന്നത് ഉദാഹരണത്തിന് ഒരു കവിതയാണ് നമ്മൾ ഒരു ആലപിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ വയലാറിൻ്റെ അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലമെന്ന ഒരു കവിത നമ്മൾ ആലപിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആ കവിതയുടെ പിന്നെ അഭാവം ഒരു ദുഃഖകരമായ ഭാവമാണ് അത് നമ്മുടെ നമ്മുടെ വരികളിൽ അല്ലെങ്കിൽ നമ്മുടെ ആലപിക്കുന്ന ആ ഒരു ഇതിൽ ആലാപനത്തിൽ അത് നമ്മൾ അത് അലർത്തിപ്പാടുമ്പോൾ അത് കേൾക്കുന്നവരിലേക്കും അതിൻ്റെ ആ ഒരു ദുഃഖകരമായ ഒരു ഫീലിങ്ങ് ഒരു വികാരം അത് ഉണ്ടാക്കാറുണ്ട് അത് ഒരുപക്ഷെ മറ്റുള്ളവരിലേക്ക് അത് സങ്കടത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു വളരെ വലിയ ഒരു ദുഃഖത്തിൻ്റെയും അവസ്ഥയിലേക്ക് ആ അവരും ആ ഒരു ഭാവത്തിലേക്ക് കടന്നുവരാറുണ്ട് എന്നാൽ നമ്മൾ സന്തോഷകരമായ ഒരു അടിപൊളി പാട്ടാണ് പാടുന്നതെങ്കിൽ അല്ലെങ്കിലൊരു പിന്നെ സ്പീഡിലുള്ള ഒരു പാട്ടാണ് നമ്മൾ പാടുന്നത് എങ്കിൽ അതിനകത്തുള്ള ഒരു സന്തോഷം അത് മറ്റുള്ളവരിലേക്കും പകർന്ന് വന്ന് അത് അവരിലേക്ക് വളരെയധികം പിന്നെ അവരേയും അത് എന്താ പറയുക അവരിലേക്കും അത് തന്നെ ആ ഭാവം ആ വികാരം അവരിലേക്കും കൂടെ കടന്ന് ചെന്നിട്ട് അവരും അതിൽ ആനന്ദിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും ഏത് പാട്ടാണോ നമ്മൾ പാടുന്നത് അത് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളാ പാട്ടിൽ നമ്മൾ പകർന്ന് പകർത്തി വെയ്ക്കാറുണ്ട് എന്നതാണ് സത്യം ഏതു പാട്ട് പാടിയാലും ആ പാട്ടിലെ നമ്മുടെ വികാരം നമ്മളാ സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള എന്ത് വികാര ഭാവമാണോ നമ്മൾ പ്രതിഫലിപ്പിക്കുക അത് അത് തന്നെയാണ് മറ്റുള്ളവരിലേക്കും കടന്ന് ചെല്ലുക അപ്പോൾ നിലാവേ മായുമോ എന്നൊരു പാട്ടാണെങ്കിൽ ആ പാട്ടിൻ്റെ അതിൻ്റെതായ ഒരു രീതിയിൽ ആ അതിൻ്റെ ദുഃഖകരമായ ഒരു വികാരം തന്നെയാണ് അത് മറ്റുള്ളവരിലേക്കും നമുക്ക് പകർത്തികൊടുക്കാൻ സാധിക്കുന്നത്